ചിത്രം വരയ്ക്കുന്നവർക്ക് പറയാനുള്ള ഉപദേശം എന്താണെന്നു ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നത് കുറേ പ്രാക്ടീസ് ചെയ്യും അതുപോലെ നമ്മൾ നമുക്ക് പറ്റില്ലെന്നു പറഞ്ഞ് നിർത്താതെ ഒരു തെറ്റ് വരച്ചിട്ട് തെറ്റിപ്പോയെങ്കിൽ അത് നമുക്ക് പറ്റില്ലായെന്നു പറഞ്ഞ് നിർത്താതെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം ശ്രമിച്ചു ശ്രമിച്ചാണ് നമുക്ക് എന്താ പറയുക നന്നായിട്ട് വരയ്ക്കാൻ സാധിക്കുകയുള്ളു നമ്മൾ നമ്മുടെ കഴിവുകൾ അങ്ങനെ ഒതുക്കിവയ്ക്കാതെ പുറത്തെടുത്ത് എന്താ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് കാണിച്ചുകൊടുത്ത് നന്നായി വരച്ചു കാണിച്ചു കൊടുത്ത് മറ്റുള്ളവർക്ക് നമ്മളൊരു പ്രചോദനമായി തീരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കഴിവുകൾ പുറത്തേക്ക് വരികയുള്ളൂ